നമ്മുടെ ഈ ഇവിടെ നടക്കുന്ന വിവാഹ ചടങ്ങുകൾ പല രീതിയിലാണ് ക്രിസ്ത്യൻസിന് നടക്കുന്നത് പണ്ട് മുതലേ ഒരേ രീതീ തന്നെയാണ് മനസ്സമ്മതം പെണ്ണ് ആദ്യം വന്ന് ചെറുക്കനെ ചെറുക്കൻ വന്ന് പെണ്ണിനെ കാണും പിന്നെ പെണ്ണിൻ്റെ വീട്ടുകാർ അങ്ങോട്ട് പോവും ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോവും പിന്നെ ചെറുക്കൻ്റെ വീട്ടുകാർ ഇങ്ങോട്ട് വരും അങ്ങനെ രണ്ട് മൂന്ന് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി ചെറുക്കൻ്റെ വീട്ടിൽ ലാസ്റ്റ് ഉറപ്പിക്കും ഉറപ്പിച്ച് കഴിഞ്ഞട്ട് മനസ്സമ്മതത്തിൻ്റെ ഡേറ്റും കല്യാണത്തിൻ്റെ ഫിക്സ് ഡേറ്റും തീരുമാനിക്കും അങ്ങനെ മനസ്സമ്മതത്തിൻ്റെ ഡേറ്റ് കണ്ട് കഴിയുമ്പോൾ ചെറുക്കൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരാണ് ഇടവക പള്ളിയിലോട്ട് അവിടെ വന്ന് മനസ്സമ്മതം അതും ഒരു ആചാരം പോലെ തന്നെയാണ് കാരണം ചെറുക്കൻ പെണ്ണിൻ്റെ വീട്ടുകാർ വന്ന് കഴിഞ്ഞിട്ടേ ചെറുക്കൻ്റെ വീട്ടുകാർ വരാൻ പാടുള്ളു ചെറുക്കൻ്റെ വീട്ടുകാർ വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ എത്തി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ വീട്ടിൽ നിന്ന് ഇറങ്ങി പള്ളിയിലോട്ട് എത്താം അതേപോലെ തന്നെ ചെറുക്കൻ്റെ വീട്ടിലേക്ക് കല്യാണത്തിന് പോകുമ്പോൾ പെണ്ണ് ചെറുക്കൻ്റെ പള്ളിയിൽ ചെന്ന് എത്തിയതിന് ശേഷം ചെറുക്കനെ അറിയിക്കും ഞങ്ങൾ ഇവിടെ എത്തി എന്ന് പറയുമ്പോൾ വരും പിന്നെ കണ്ട് വരുന്നത് പോലെ തന്നെ സാധാരണ അന്ന് ഉള്ള കല്യാണത്തിനൊക്കെ അന്ന് വെള്ള സാരി ഉടുത്ത് തലയിൽ മുടി ഒക്കെ പൊക്കി കെട്ടി മുടി പൊക്കി കെട്ടാനുള്ള കാരണം എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ താലി കെട്ടുമ്പോൾ അന്നേരം അത് മുടി പൊക്കി കൊടുക്കാൻ അതൊരു ബുദ്ധിമുട്ടായത് കൊണ്ട് അത് ഒരു അതായത് കൊണ്ട് അന്ന് നമ്മൾ മുടിയൊക്കെ പൊക്കി കെട്ടി തലയിൽ നെറ്റും കയ്യിൽ ബൊക്കയൊക്കെ പിടിച്ച് തലയിൽ കിരീടമൊക്കെ വച്ച് ചുട്ടിയൊക്കെ വച്ചിട്ടാണ് നമ്മൾ അന്ന് ആഭരണങ്ങളൊക്കെ ഇട്ട് വെള്ള സാരിയൊക്കെ ഉടുത്താണ് പള്ളിയിൽ പോയി കൊണ്ടിരുന്നത് ഇന്ന് അതിൽ നിന്ന് കുറച്ചും കൂടെ മാറ്റം വന്നത് എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ആ വെള്ള സാരിയിൽ നിന്നൊരു മാറ്റം വന്ന് ചെറിയ ഒരു ഗോൾഡൻ കളറിലേക്കായി ഗോൾഡൻ കളറ് മാറി ഇപ്പം അത് നല്ല ഗോൾഡൻ കളറിലേക്ക് ആയി പിന്നെ അത് ഒരു സിൽവർ കളറിലേക്ക് മാറി ഇപ്പോഴത്തെ കല്യാണങ്ങൾക്ക് ഒക്കെ കാണുന്നത് സിൽവർ കളർ ഇപ്പോൾ അത് കുറച്ചും കൂടെ ഒന്ന് മാറ്റം വന്നു ഒരു ലൈറ്റ് കളറിലേക്കൊക്കെ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട് പിങ്ക് ഷേഡിലേക്ക് അങ്ങനെ മാറി തുടങ്ങി അപ്പം അതാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പള്ളിയിൽ നിന്ന് കല്യാണം കഴിക്കുന്നു അത് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ പള്ളിയിൽ തന്നെ ആയിരിക്കും വിവാഹ സൽക്കാരങ്ങൾ ഇല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടിൽ പോയിട്ട് പെണ്ണിൻ്റെ വീട്ടുകാർ ആദ്യം മധുരം വയ്പ്പ് മധുരം വയ്പ്പെന്ന് പറയുമ്പോൾ കേക്കോ വൈനോ എന്തെങ്കിലും കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പ്പരം കൈമാറി മധുരം വയ്ക്കുന്നു അമ്മ കുരിശ് വരച്ച് നെറ്റിയെ കുരിശ് വരച്ച് കയറ്റുന്നു പിന്നെ തിരി കൊടുത്ത് അകത്ത് കയറ്റുന്നു ഇതൊക്കെയാണ് ചടങ്ങുകൾ പിന്നെ കല്യാണം കഴിഞ്ഞാൽ ഒന്നുല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ചെറുക്കൻ്റെ വീട്ടിൽ അന്ന് നിൽക്കും അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ വിരുന്നായിട്ട് അങ്ങോട്ട് പോകും അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിലേക്ക് കൊണ്ട് വന്ന് ആക്കും പെണ്ണിൻ്റെ വീട്ടിൽ അല്ല ചെറുക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിനെ കൊണ്ട് വന്ന് ആക്കും ഇങ്ങനെയാണ് ക്രിസ്ത്യൻസിൻ്റെ രീതികൾ പോകുന്നത് ഹിന്ദൂസിൻ്റെ ഇതിലേക്ക് നോക്കുക ആണെങ്കിൽ ഇതേ പോലെ ആരെങ്കിലും പറഞ്ഞു ഒരു പെണ്ണ് അവിടെ ഉണ്ട് അല്ലെങ്കിൽ ചോദിച്ച് കേട്ട് അവിടെ എത്തും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ടു ചെറുക്കനും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കണ്ടു ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നിശ്ചയമായിട്ടാണ് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് പെണ്ണ് അവരുടെ തന്നെ ആണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന് ചെറുക്കൻ്റെ പെങ്ങളോ അവർ ആരെങ്കിലും വന്നിട്ട് പെണ്ണിനെ പിന്നെ വളയോ അല്ലെങ്കിൽ മോതിരമോ എന്തെങ്കിലും ഇട്ട് കൊടുക്കും അപ്പം അത് അവരുടെ പെണ്ണായി എന്ന് ഉറപ്പിച്ചു അത് കഴിഞ്ഞ് അവർ പോയി പിന്നെ ഒരു കല്യാണത്തിൻ്റെ ഡേറ്റ് അവർക്ക് നാളും മുഹുർത്തമൊക്കെ നോക്കിയിട്ടാണ് ഹിന്ദുക്കളുടെ കല്യാണം നടക്കുന്നത് അപ്പം അത് നോക്കി അത് ആ പണിക്കാരെ പോയി കാണുഓ അല്ലെങ്കിൽ അമ്പലത്തിൽ പോയി ചോദിക്കുക ഒക്കെ ചെയ്തിട്ട് നോക്കി ഒരു നാളും സമയവു കണ്ടെത്തി അതിനുള്ള സമയം നോക്കി മുഹൂർത്ത സമയം ഒന്നുല്ലെങ്കിൽ അവർക്ക് അമ്പലത്തിൽ വച്ച് ചില ആൾക്കാർ ചെയ്യുന്നത് ഗുരുവായൂർ അങ്ങനെ ഏതെങ്കിലും പ്രശസ്തി കേട്ട അമ്പലങ്ങളിൽ വച്ച് നടത്താറുണ്ട് ചിലർ വീട്ടിൽ തന്നെ പൂജാരിനെ വച്ച് ഹോമകുണ്ഡോമൊക്കെ ഉണ്ടാക്കി മണ്ഡപം ഒക്കെ ഉണ്ടാക്കി അവിടെ നടത്തുന്നവരും ഉണ്ട് അപ്പം നമ്പൂതിരി വരും ആ പിന്നെ അവിടെ വച്ച് അമ്പലങ്ങളിൽ പോകുന്നവർ അധികവും കാണുന്നത് സെറ്റ് സാരിയോ അല്ലെങ്കിൽ പട്ട് സാരിയൊക്കെ ഉടുത്ത് പോകും ചില ഹിന്ദൂസിന് തന്നെ തീയ്യർ പിന്നെ ബ്രാഹ്മൺസ് അങ്ങനെ പലരും ഉണ്ടല്ലോ അപ്പം അതിൽ ചില കൂട്ടർക്ക് ചെറുക്കൻ്റെ വീട്ടുകാർ തലേദിവസം സാരി കൊണ്ടു കൊടുക്കും അത് ഉടുത്തിട്ടായിരിക്കും അവർ കല്യാണത്തിന് പോണേ ചില കൂട്ടർ എന്താണെന്ന് വച്ചാൽ പെണ്ണിൻ്റെ വീട്ടുകാർ എടുക്കുന്ന സാരി ഉടുത്ത് അമ്പലത്തിലോ അല്ലെങ്കിൽ വിവാഹ മണ്ഡപത്തിലേക്കോ ഇറങ്ങും അത് അപ്പൻ്റെയും അമ്മയുടെയും കൈ പിടിച്ചാണ് പെണ്ണ് മണ്ഡപത്തിലേക്ക് കയറുന്നത് താലി കെട്ടി കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അതൊരു തളികയിൽ ചെറുക്കൻ്റെ അവിടെ നിന്ന് കൊടുക്കുന്ന സാരി ഉടുക്കും ആ സാരി പിന്നെ അവർ അവിടെ നിന്ന് മാറ്റി ഉടുത്തിട്ടാണ് ഭക്ഷണം കഴിക്കൽ ഒക്കെ കഴിഞ്ഞ് സാരി ഉടുത്ത് മാറ്റിയിട്ടാണ് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ആ സാരി ഉടുത്താണ് അവർ പോകുന്നത് പിന്നെ അവർക്ക് ചടങ്ങുകളായി കല്യാണം കഴിഞ്ഞ് വന്ന് ചെറുക്കൻ്റെ വീട്ടിൽ നിൽക്കും പിന്നെ എത്രയോ ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കഴിയുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് അടുക്കള കാണാൻ എന്ന് പറഞ്ഞ് ചടങ്ങുണ്ട് അതിന് വരും അത് കഴിഞ്ഞ് അവർ പോയി കഴിഞ്ഞ്ഞ്ഞാ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാർ ചെറുക്കൻ്റെ വീട്ടിൽ നിന്നുള്ള ആൾക്കാരും വിരുന്ന് കാരും അയൽപക്കക്കാരെല്ലാം കൂടെ പെണ്ണിൻ്റെ വീട്ടിലോട്ട് പോകും അന്ന് അവിടെ നിൽക്കുന്നില്ല അവർ പോയി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് സർക്കാരം കഴിയുമ്പോൾ തിരിച്ച് പോരും അങ്ങനെയൊക്കെയാണ് ഹിന്ദൂസിൻ്റെ ആചാരങ്ങൾ പോകുന്നത് ഹൽദി രണ്ട് ദിവസം മുന്നേ ഓരോ പരിപാടികൾ അങ്ങനെയൊക്കെ ആയിട്ട് മഞ്ഞ കല്യാണം തലേദിവസത്തെ കല്യാണത്തിനാണ് മഞ്ഞ കല്യാണം എന്ന് പറയണെ അങ്ങനെ പോകുന്നു ഹിന്ദൂസിൻ്റെ കല്യാണം മുസ്ലിംസിൻ്റെ പറയുക ആണെങ്കിൽ അന്ന് ഒരു ഇതുണ്ട് ഒരു പെണ്ണുണ്ട് അല്ലെങ്കിൽ ഒരു നിക്കാഹ് കഴിഞ്ഞ് ചിലപ്പോൾ നിക്കാഹിൻ്റെ അന്ന് തന്നെ രണ്ടും നടത്തി കൊണ്ട് വരും ചില സമയത്ത് നിക്കാഹ് കഴിഞ്ഞിട്ടാണ് അവരുടെ ഇതിൽ നിക്കാഹെന്ന് പറഞ്ഞാൽ അവരുടെ പെണ്ണ് ആയി എന്നാണ് പിന്നെ പെണ്ണിൻ്റെ പെണ്ണിനെ ചെറുക്കൻ്റെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെറുക്കനെ വന്ന് നിക്കുവോം അവർ ഒന്നിച്ച് താമസിക്കുന്നതിനോ ഒന്നും അവർക്ക് കുഴപ്പമില്ല പക്ഷേ നിക്കാഹ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിനെ കൊണ്ട് പോകുന്ന കൂട്ടി കൊണ്ട് പോകുന്ന ചടങ്ങിനാണ് വലിയ കല്യാണമായിട്ട് അവർ കണക്കാക്കുന്നത് അതേപോലെ തന്നെ തലേ ദിവസം പെണ്ണിന് വസ്ത്രങ്ങളെല്ലാം കൊണ്ടു കൊടുക്കും അത് ഇട്ട് അവർ ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോകുന്നത് അവരുടെ ആചാരങ്ങൾ അങ്ങനെ പോകുന്നു തല നിറച്ചും മുല്ലപ്പൂ ഒക്കെ ചൂടി തലയിൽ തട്ടമൊക്കെ നന്നായ് ഇട്ട് നല്ല ഒത്തിരി ഒരുങ്ങി നല്ല സുന്ദരികളായിട്ടായിരിക്കും മുസ്ലിം കുട്ടികൾ പെണ്ണിൻ്റെ ചെറുക്കൻ്റെ വീട്ടിലോട്ട് പോകുന്നതും

അങ്ങനെ എല്ലാമുള്ള ആചാരങ്ങളാണ് വിവാഹച്ചടങ്ങുകളായിട്ട് ഇവിടെ നടക്കുന്നത് ഇത് ഇപ്പോഴും ചില ആചാരങ്ങൾ ഇന്നും പിന്തുടർന്ന് പോകുന്നുണ്ട് നല്ലതായിട്ടും ചിലർ അതിനെ നല്ലതായിട്ടും ചിലത് അവരെ അതിന് അതിനേക്കാളും ഇനി അതിൽ കൂടുതൽ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കി അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുമുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ സമൂഹത്തിൽ നടക്കുന്ന കുറേ ആചാര അനുഷ്ഠാനങ്ങൾ